ഇപ്പോൾ ഇന്ത്യയിലെ പല തര പല സംസ്ഥാനങ്ങളിലും നമ്മള് ശെരിക്കും പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ജമ്മു കാശ്മീര് ജമ്മു കാശ്മീരിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുളള നമുക്ക് കാണാൻ പറ്റും മഞ്ഞു വീഴ്ചയും പിന്നെ അവിടുത്തെ ആൾക്കാരുടെ ഓരോ കാര്യങ്ങളും നമുക്ക് വേണമെങ്കില് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം കൂടുതലായിട്ടും നമ്മള് ജമ്മു കാശ്മീര് ആ ഭാഗങ്ങളിൽ ഒക്കെ പോകുവാണെങ്കില് കാരണം ഭയങ്കര പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീരെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു ജില്ലയ്ക്ക് വേണ്ടിയിട്ട് പാക്കിസ്ഥാനും ഇന്ത്യയും ഭയങ്കര അടിയും ഇടിയൊക്കെയാണ് കാരണം അവിടെ നമ്മുടെ പട്ടാളക്കാരാണ് അവിടെ നമുക്ക് നമ്മുടെ ജമ്മു കാശ്മീരിന് വേണ്ടിയിട്ട് പൊരുതി നിൽക്കുന്ന ആൾക്കാരെന്നു വേണമെങ്കിൽ പറയാം അവിടെ നല്ല ഇതാണ് ഒരു ലഡാക്ക് ആ ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാന് അതായത് നമ്മള് മഞ്ഞുവീഴ്ചയും കാര്യങ്ങളൊക്കെയായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ലഡാക്കെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പോകാൻ പറ്റിയത് രാജസ്ഥാൻ ആ ഭാഗങ്ങളൊക്കെ അവിടെയാണ് റാം റാംറാജി സ്റ്റുഡിയോ അങ്ങനത്തെ സാ ഇതുള്ളത് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ബാഹുബലി അങ്ങനെത്തെ വലിയ വലിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലങ്ങളൊക്കെയാണവിടെ അവിടെയൊക്കെ പോയി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള പിന്നെ താജ് മഹാല് കാണാൻ പോവാന് ഭയങ്കര രസമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ടും നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയായിട്ടും വേണമെങ്കിൽ പറയാം